എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന കോമഡി ആണ് ബോബനും മോളിയും മാസിക വരാനായിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാവരും അടികൂടിയിരിക്കും എല്ലാ വെള്ളിയാഴ്ചയാണ് ഇതു പ്രസിദ്ധീകരിച്ചു വരുന്നത് വന്നാൽ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു വലിച്ച് കീറിയാണ് വായിക്കുന്നത് അത്രക്ക് കോമിക്കായിരുന്നു അന്ന് അതിൽ ഒരു ചെറിയ കഥാപാത്രത്തെ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ബോബനും മോളിയും വളരെ മികച്ചതാരങ്ങളാണ് അവരെ കാർട്ടൂൺ വരെയും എല്ലാം കാണാൻ കണ്ണിനും പ്ര കണ്ണിനും മനസ്സിനുമൊക്കെ പ്രത്യേക സുഖം തരുന്ന ഒരു കഥയാണ് അതിലത് അതിൽ അവരുടെ ഒരു ചേട്ടനും ചേട്ടത്തിയുണ്ട് അവരൊരു ദിവസം ഉല്ലാ ഒരു ചേട്ടനൊരുദിവസം ചെ ബൈക്കും വാങ്ങിച്ചു കൊണ്ട് വരുന്നു അപ്പം ചേട്ടത്തി അമ്മ അതിലേക്കു കയറി ഇരിക്കാമെന്നു പറയുന്നു പക്ഷെ പഠിപ്പിച്ചിട്ടില്ല ഇതു കണ്ടിട്ട് ചേട്ടൻ ഭയങ്കര ആക്രാന്തം അവർ രണ്ടുപേരും കൂടി കയറി ബോബനും മോളിയും ഇതൊക്കെ കണ്ടു നിന്നങ്ങ് ആസ്വദിക്കയാണ് ആസ്വദിച്ചു കളിച്ചും ചിരിച്ചും അവരങ്ങ് ഉത്സാഹിക്കുകയാണ് ആ സമയത്താണ് വഴിയിലേക്കും വെച്ച് ചേട്ടത്തി തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂട്ടറിൽ ചേട്ടനെ കാണുന്നില്ല ചേട്ടൻ അവിടെയെങ്ങാണ്ട് ഉരുണ്ടു വീഴുന്നു ഇവരിതൊന്നും അറിയുന്നില്ല ഇവരിതും കൊണ്ടങ്ങ് പോകുകയാണ് നല്ല കോമഡിയാണ് അപ്പോഴത്തേക്കാണ് ചേട്ടൻ ഒരു മരത്തിൻ്റെ മൂട്ടിലിരുന്നു വിശ്രമിച്ചങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചേട്ടത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാനില്ലല്ലോ ചേട്ടനെ എന്തു ചെയ്യും പറഞ്ഞു വണ്ടി ആണെങ്കിൽ നിർത്താനും പഠിപ്പിച്ചുകൊടുത്തിട്ടില്ല അവർ വണ്ടിയായിട്ട് അങ്ങനെ പോകുകയാണ് പോയി അവസാനം ഒരു സ്ത്രീയുടെ മേലിലിടിച്ച് മരത്തിലൊക്കെ ഇടിച്ച് അവരങ്ങ് വണ്ടി നിർത്തും തിരിച്ചിവിടെ വന്നിട്ട് ചേട്ടൻ ബോബനും മോളിയുടെ അടുത്തും ചോദിക്കയാണ് ചേട്ടത്തി എവിടെ അതു വണ്ടി പഠിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു നിർത്താൻ പഠിപ്പിച്ചിട്ടില്ല അയ്യോ ഇനിയിപ്പോൾ എന്തേയുന്ന് പറഞ്ഞ് അവരിങ്ങനെ വിഷമിച്ച് ചിരിച്ചു ഇരിക്കുമ്പോഴത്തേക്കാണ് കു ഒരു കുട്ട ബോബനെന്ത്യേടി എന്നു ചോദിക്കും മോളിയുടെ അടുത്ത് അപ്പം മോളി പറയുകയാണ് ബോബൻ കുട്ടയെടുക്കാൻ അതെന്തിനാടാ കുട്ടയെടുക്കാൻ പോയത് കുട്ട സ്കൂട്ടറെല്ലാം കൂടി നുള്ളിപെറുക്കാനാണെന്ന് അപ്പോഴാണ് ഇദ്ദേഹം അങ്ങ് ബോധം കെട്ട് വീഴുകയാണ് സ്കൂട്ടറാണ് പരിവമായി എന്നറിയുന്ന അങ്ങനെ ഒരു തമാശ അതു കണ്ടാലേ മനസ്സിലാകുകയുള്ളൂ നമ്മളിങ്ങനെ പറഞ്ഞാലൊന്നും അതു മനസ്സിലാകില്ല അതിൻ്റെ ചിത്രവും വരികയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളോടുക്കൂടി അതു കണ്ട ഒരു ദിവസം മുഴുവനും നമ്മൾ ചിരിച്ചാലും മതിയാവില്ല അത്രക്ക് ആഹ്ളാദകരമാണ് അതു കാണാനും നല്ല ഭംഗിയുണ്ട് വരയുടെ കാര്യം ബോബനും മോളിയും അറിയാത്തവരാരും കാണില്ല ടോമിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് ഇപ്പോഴും അതു പ്രസിദ്ധീകരിച്ചു കൊണ്ടു തന്നെ പഴയതിരിക്കുന്നുണ്ട് അതു കുട്ടികളും കാണുന്നുണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതു കാണാനായിട്ടു പിന്നെ ഇപ്പോൾ പുതിയ രീതിയിലുള്ളതെല്ലാം ആയിയെന്നുള്ളതേ ഉള്ളു